സാധാരണ കോഴികൾക്ക് കൊടുക്കുന്നത് കോഴി തീറ്റ ആയി കൊടുക്കുന്നത് അരി ഗോതമ്പ് ധാന്യങ്ങൾ ഇതൊക്കെ കൊടുക്കാറുണ്ട് കോഴികൾ കോഴികൾക്ക് കോഴികൾ നല്ല മികച്ച തനം കോഴി കോഴികൾക്ക് പുല്ലുകൾ ചെത്തി അരിഞ്ഞു കൊടുക്കണം പുല്ല് ധാരാളമായി കൊടുക്കേണ്ടതുണ്ട് ധാന്യങ്ങളുടെ കൂട്ടത്തിൽ വെള്ളം നല്ല വെള്ളം കൊടുക്കണം അങ്ങനെ എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് സാധാരണ കോഴികൾ നമ്മുടെ സാധാരണ കോഴികൾക്ക് സാധാരണ വീടുകളിൽ കൊടുക്കുന്നത് നമ്മൾ പാകം ചെയ്യുന്ന ഭക്ഷണത്തിൻ്റെ സാധനം ഭക്ഷണത്തിൻ്റെ ബാക്കിയും അങ്ങനെ അരി ഗോതമ്പ് മുതലായ കാലിത്തിറ്റകളൊക്കെ കോഴിത്തീറ്റകൾ അങ്ങനെ കൊടുക്കാറുണ്ട് കോഴിത്തീറ്റകളിൽ പ്രധാനമായിട്ടും കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന കോഴി തീറ്റകളാണ് കൊടുക്കുന്നത് അതിലൊക്കെ ഉപരിയായി നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന നമ്മൾ മിച്ചം വരുന്ന ചോറ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കോഴികൾക്ക് കൊടുക്കാറുണ്ട് ഇപ്പോൾ എന്ത് കോഴികളിൽ നിന്നും കൂടുതലായി നമുക്ക് ഉൽപ്പന്നങ്ങൾ കിട്ടണമെങ്കിൽ കോഴിക്ക് നമ്മുടെ ആര്യ നമ്മുടെ വീട്ടിലെ ആഹാരങ്ങൾ കൊടുത്താൽ പോര നമ്മള് വാങ്ങിക്കുന്ന ഗോതമ്പ് സോയാ ബീൻ മുതലായ സാധനങ്ങളൊക്കെ കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് കൂടുതലായി അതിൽ നിന്ന് ഉല്പന്നങ്ങൾ കിട്ടുകയുള്ളൂ അതിനുവേണ്ടിട്ട് കാശ് മുടക്കിച്ച് കൊടുത്തെങ്കിൽ മാത്രമേ കിട്ടുകയുള്ളൂ എല്ലാം കോഴികളെ കോഴികൾ ധാരാളമായി ഉണ്ടെങ്കിൽ കോഴികളെ വളർത്തി ആദായം എടുക്കുന്ന പല വീടുകളും ഉണ്ട് പലരും ജീവിക്കുന്നുണ്ട് ഗുണകരമായ മെച്ചപ്പെട്ട രീതിയിലുള്ള ഒരു കൃഷിയായി തന്നെ കോഴി വളർത്തലിനെ കരുതുന്നു കോഴികൾ ധാരാളം കോഴികൾ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് പോഷകമായ ആഹാരങ്ങൾ നമ്മൾ കൊടുക്കുന്നു തവിട് ഗോതമ്പ് പിണ്ണാക്കും തവിടും കുഴച്ചു കൊടുക്കാറുണ്ട് പുല്ല് ചെത്തി കൊടുക്കാറുണ്ട് കോഴികളെ ധാരാളമായി ഞങ്ങളിവിടെയൊക്കെ കോഴികളെ അഴിച്ചു വിട്ടാണ് വളർത്തുന്നത് അതുകൊണ്ട് കോഴികൾക്ക് പുല്ല് കൊടുക്കും ചെത്തി കൊടുക്കേണ്ട കാര്യങ്ങൾ ഒന്നുമില്ല അവ തന്നെ പോയി അതൊക്കെ സമ്പാദിച്ചു കഴിച്ചു കൊള്ളും കൂടാതെ കോഴികൾക്ക് നമ്മൾ കൊടുക്കുന്ന ആഹാരങ്ങൾ ഇതൊക്കെ തന്നെയാണ് സോയാ ബീൻ കടകളിൽ നിന്നും വാങ്ങിക്കുന്ന ഗോതമ്പ് സോയാ ബീൻ പയർ വർഗ്ഗങ്ങൾ ഗുണമേന്മയുള്ള പലതരം കോഴി തീറ്റകൾ നമുക്ക് കിട്ടാറുണ്ട് അതൊക്കെ കൊടുക്കുന്നുണ്ട് ഇതിന് പുറമേ ധാരാളമായിട്ട് നമ്മുടെ വീടുകളിൽ ഉള്ള സാധനങ്ങൾ തന്നെയാണ് കോഴികൾക്ക് കൊടുക്കുന്നത് കോഴികളെ പറ്റി പറഞ്ഞാൽ കോഴികൾ അങ്ങനെ തന്നെ വളർന്നു പോകുന്നു കോഴികളെ കൂടുതലായി അടച്ചിട്ട് ഫാം ആയി വളർത്തുന്നവർ കോഴിത്തീറ്റ ധാരാളമായി കൊടുക്കുന്നു അത്ങ്ങൾക്ക് വെള്ളം കുടിക്കാൻ ആവശ്യത്തിനു കൊടുക്കണം ഉൽപ്പന്ന നല്ല ഉൽപ്പന്നങ്ങൾ ലഭിക്കുക നല്ല രീതിയിലുള്ള ഭക്ഷണങ്ങൾ കൊടുത്തെങ്കിൽ മാത്രമേ നല്ല രീതിയിലുള്ള അതിൽ നിന്ന് ആദായവും വരുമാനവും ഉണ്ടാവുകയുള്ളൂ അതിൻ്റെ കോഴിയുടെ എല്ലാ കാര്യങ്ങളൂം സാധാരാണ സാധാരണക്കാരായവർ എല്ലാ വീടുകളിലും കോഴികളെ വളർത്തുന്നുണ്ട് എല്ലാവരും കോഴികളെ വളർത്തുമ്പോൾ കൊടുക്കുന്നത് സാധാരണയായി കൊടുക്കുന്നത് ഗോതമ്പ് പിന്നെ നമ്മുടെ വീടുകളിൽ നമ്മുടെ ഭക്ഷണസാധനങ്ങൾ നമ്മൾ ബാക്കി വരുന്ന ഭക്ഷണ സാധനങ്ങളും ചോറും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് കൂടുതലായിട്ട് നമ്മുടെ വീടുകളിൽ കൊടുക്കുന്നത് പിന്നെ കുറച്ച് ഗോതമ്പുകളൊക്കെ കൂടി വാങ്ങിച്ചു കൊടുക്കാറുണ്ട് അങ്ങനെ നമ്മൾ കോഴികളെ വളർത്തുന്നു കോഴികളെല്ലാം നമുക്ക് ന്യായമായ രീതിയിൽ ഉള്ള മുട്ട തരികയും എല്ലാം കിട്ടുകയൊക്കെ ചെയ്യുന്നുണ്ട്